നേടിയെടിക്കാൻ ആഗ്രഹിക്കുന്ന നെയ്ത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളോ അഭിലാഷങ്ങളോ പൊതുവേ സാധാരണ ഗ്രാമീണ മേഖലയിലുള്ള ബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നെയ്ത്താന്ന് കാരണം ഒരു പരിധിവരെയൊള്ള ആൾക്കാരുടെ ജീവിതമാർഗ്ഗവും നെയ്ത്താണ് മലയോരമേഖലകളിൽ ഒരുമാതിരിപ്പെട്ട ഒരു പരിധിവരെയുള്ള ആൾക്കാരൊക്കെ നെയ്യ്ത്തുവായി ബന്ധപ്പെട്ട ജീവിക്കുന്ന ഇപ്പഴാണ് പല കാര്യങ്ങൾക്കായിട്ടും ബന്ധങ്ങളൊക്കെ പുറത്ത് ഓരോരോ ജോലികൾക്കൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നത് ഇതുവരെ തൊണ്ണൂറ്ശതമാനം ആൾക്കാരും നെയ്ത്തുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് നെയ്ത്തു കൊണ്ട് തന്നെ ഇപ്പം ഒത്തിരി ജീവിത സാഹചര്യങ്ങള് അല്ല ഒത്തിരി കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒരു നടത്തിക്കൊണ്ടിരുന്നാണ് നെയ്യ്ത്ത് കൊണ്ടും പിന്നേ തയ്യൽ ജോലി കൊണ്ടാണ് പല വനിതകളും സ്വന്തം കുടുംബങ്ങളിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കൊരു പരിധിവരെ ചെയ്തിരുന്നത് ഇപ്പഴാണ് സ്ത്രീകള് പൊതുവേ പുറത്തേക്കോരോരോ ജോലികൾക്കായും കാര്യങ്ങൾക്കായാലും പോയി തുടങ്ങിയത് എങ്കിലും ഇന്ന് ഒരു പരിധിവരെ സ്ത്രീകള് സ്വന്തം വീട്ടിലൊരു മെഷീനുണ്ട് അത്യാവശ്യം ഓരോ മക്കൾക്കും ഭർത്താവിനും വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ച്ച് തന്നെയാണ് ഉപജീവനം കഴിക്കുന്നത് അവര് സ്വന്തായിട്ട് പലപ്പോഴും ഓരോരോ വരുമാനം കാര്യങ്ങളും ഇതുകൊണ്ട് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പരിധിവരെ എല്ലാവർക്കും ചെയ്യാവുന്ന വീട്ടിലിരുന്ന് തന്നെ പകൽ രാത്രിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നൊരു ജോലിയാണ് തയ്യല് ഇപ്പം പക്ഷെ ഒരു പരിധിവരെ പിന്നെ പല റെഡിമെയ്ഡ് സെൻ്ററുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് പല വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് എന്തോ തയ്യല് കിട്ടൂല്ല പക്ഷേ ഉള്ള തയ്യലിപ്പം നല്ല കോസ്റ്റിലി ആയത് കാരണം ഒരു പരിധിവരെ ആൾക്കാർക്ക് തയ്യൽലൊക്കെ ചെയ്യാന് പറ്റുന്നുണ്ട് പിന്നെ പരമ്പരാഗതമായിട്ട് അതിനൊക്കെ ഓരോ കഴിവും കൂടിയാണ് പാരമ്പര്യമായിട്ട് ചില മാതാപിതാക്കളിൽ നിന്നും ചില മക്കൾക്ക് ഇതൊക്കെ പകർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ചില ജോലികള് തയ്യൽ ജോലികളൊക്കെ ചിലർക്ക് എല്ലാവർക്കും പൊതുവേ ഒരു തയ്യൽ മെഷീനൊന്നും ഇല്ലാത്ത വീടുകള് പൊതുവേ കുറവാണ് പഴയകാലത്തെ വീടുകളെല്ലാം തന്നെ തയ്യൽ മെഷീൻ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പഴാണ് പിന്നെ എല്ലാ തുണികളെല്ലാം കടയിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ പൊതു ഒരു തൊണ്ണൂറ്ശതമാനം സ്ത്രീകള് ഇപ്പഴും സ്വന്തം വീട്ടിലാണ് അവനവന് ആവശ്യമുള്ള വസ്ത്രങ്ങള് നമ്മുടെ മക്കളുടെ വസ്ത്രങ്ങളും എല്ലാം സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുകയും അതനുസരിച്ച് അത് വേറെ വേണ്ട വിധത്തില് ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് അപ്പം അപ്പഴ് പര സ്ത്രീകളും സ്വയം തൊഴിലിലായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് തയ്യലാണ് വനിതകളെല്ലാം തന്നെ അത് ഒരു കുറെ വർഷങ്ങൾക്കും മുമ്പ് തയ്യൽ എന്ന് പറയുന്നത് തയ്യൽ സെൻ്ററുകളും തയ്യൽ പരിശീലന കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടില് സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യവായിരുന്നു പക്ഷെ ഇപ്പഴാണ് തയ്യൽ സെൻ്ററുകളും പരിശീലന കേന്ദ്രങ്ങൾ ഇല്ലന്നായത് ഓൺലൈൻ വഴിയായും അങ്ങനൊക്കെ ഒത്തിരി മന്നെ ജോലി സാധ്യതകളൊക്കെ കണ്ട് തുടങ്ങിയതിൽ പിന്നെ തയ്യൽ എന്ന രീ ജോലിയിൽ നിന്ന് ആൾക്കാരും ഒരു പരിധിവരെ പുറകോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴും പഴയ രീതിയിലുള്ള തയ്യലുകളും മെഷീനുകളെ ആശ്രയിക്കുന്ന ആളുകളുണ്ട് എങ്കിലും

തുണികളൊക്കെ ഉള്ളപ്പോൾ പരമാവധി റെഡിമേഡ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാര് ഇപ്പോൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങളില് പിന്നാലയോ ഓൺലൈനായി വാങ്ങിക്കുന്ന വസ്ത്രങ്ങളില് പിന്നാലെയോ ആയത് കൊണ്ട് ഇട്ട് പരിധിവരെ തയ്യൽ കാര്യങ്ങളൊക്കെ

അവർക്ക് മിക്കവരും റെഡിമെയ്ഡ്വ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ വലിയ വലിയ കടകളില് ഷോപ്പില് ഒക്കെ അവിടെ പോയി ഇരുന്ന് തയ്ച്ച് ശമ്പളം വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുവാണ് പഴയ കാലത്തുള്ള ആളുകൾ അങ്ങനെയല്ല ഒരു പിന്നെ സ്വന്തമായിട്ട് വീട്ടില് മെഷീൻ വെച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ തയ്ക്കുകയും അങ്ങനെ ഉപജീവനമാർഗ്ഗമായിട്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നു അത് കാരണം അന്നത്തെ സ്ത്രീകൾക്ക് അവർക്ക് സ്വന്തായിട്ട് വരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മക്കളും ഓട്ടോമാറ്റിക്കലി തയ്യല് പഠിക്കുകയും മെനക്കെട്ട് പഠിച്ചില്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്കത് ചെയ്യാൻ താല്പര്യം കാര്യങ്ങളും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുവായിരുന്നു പിന്നേ ഇന്ന് നേരത്തെ കാല് കൊണ്ട് ചവിട്ടി പ്രവർത്തിപ്പിച്ചിരുന്ന യന്ത്രം ഇന്ന് കറണ്ടില്ലായി പലപ്പോഴും ത തയ്ക്കണോന്നോർത്തിരിക്കുമ്പോൾ കറണ്ടില്ലെങ്കിൽ ഒരു പരിധിവരെയുള്ള ആൾക്കാര് അലസരായി പോകാറാണ് പതിവ് പിന്നെ പിന്നേ ഇപ്പോൾ വസ്ത്രങ്ങളിലെ ലഭ്യത പഴയ കാലത്തെ രീതി അപേക്ഷിച്ച് ഇപ്പം ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ ലഭ്യമാണ് കാരണം ഒച്ചിരി കീറല്ലോ എന്തേലും പ്രശ്നങ്ങളളോ വന്നാൽ തന്നെ അതിനെ മാറി മേടിക്കാനും പുതു വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസിയിലേക്കാണ് മനുഷ്യർ എല്ലാവരും വന്നിരിക്കുന്നത് അത് കാരണം തന്നെ തയ്യലുവായിട്ട് തയ്യലുവായിട്ട് ബന്ധപ്പെട്ട് കുടുംബങ്ങൾ ഇതു ചെയ്യുന്നവർ ചുരുക്കവാണെങ്കിലും തയ്യ്ക്കുന്ന നമ്മള് ഇതിനൊരു പരിധി വരെ നമ്മുടെ നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങള് നമ്മള് തന്നെ തയ്ക്കുകയും അത് തയിച്ചെടുക്കുന്നതും ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നത് അതൊരു സ്ത്രീകൾക്കെല്ലാം പൊതുവേ ആഗ്രഹമുള്ള കാര്യമാണ് തയ്യല് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ തയ്യലിനോട് പുതിയ ഇൻട്രസ്റ്റുള്ള ആൾക്കാരാണ് ഇപ്പം പണ്ടുകാലത്തൊക്കെ തയ്യൽ സെൻൻ്ററുകളും തയ്യൽ പരിശീലന കേന്ദ്രങ്ങളും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു ചില ചില വീടുകളില് ചില ചില സ്ഥാപനങ്ങളില് പള്ളി വക അല്ലാതെ ഓരോ ട്രസ്ടിൻ്റ കീഴിലും അങ്ങനെ ഒക്കെ തയ്യൽ സെൻ്ററുകളാണുണ്ടായിരുന്നത് ഇന്ന് ഇതിൻ്റക്കെ സ്ഥാനത്ത് കമ്പ്യൂട്ടർ സെൻ്ററുകളും അങ്ങനൊക്കെ കയറിവന്നത് കൊണ്ടാണ് ഈ തയ്യലിന് വേണ്ടത്ര പ്രശക്തിയില്ലാതെ പോകുന്നത് എങ്കിലും വലിയ വലിയ കമ്പനിക്കാരും വൻകിട കമ്പനിക്കാര് തയ്യലറിയാവുന്ന സ്ത്രീകളെ ഒപ്പിക്കുകയും തയ്യലവര് കംസ്റ്റ്രൂട്ടിന് വേണ്ടിയുള്ള തയ്യയിലിക്കേണ്ട സാധനങ്ങളൊക്കെ തയ്യ്ക്കുകേം ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി വനിതകൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സാധ്യത മാറി അവര് പൊതുവേ ഷോപ്പിലും പോയിരുന്നു ജോലി ചെയ്ത് മാസംന്തോറും കൃത്യമായൊരു ശമ്പളം മേടിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ തയ്യലുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പോയിരിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് നിശ്ചിതമായ തയ്യലിനനുസരിച്ച് നിശ്ചിതമായ ഒരു ശമ്പളവും അതനുസരിച്ച് അവർക്ക് വരുമാനം ഉണ്ടെന്നുള്ളൊരു ബോധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും അങ്ങനെ ഒക്കെ വൻകിട കമ്പനികളില് കടകളില് അങ്ങനെ എന്തേലുവൊക്കെയുള്ള കീഴിലുള്ള കമ്പനികളില കീഴില് തയ്യൽ നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ വേറെന്തേലും ജോലിക്ക് പോകുന്നവര് അത് ജോലിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാര് അപ്പഴാണ് അത്യാവശ്യം അവരോരുടെ കുടുംബങ്ങളില് വൈകുന്നേരങ്ങളില് രാത്രി സമയങ്ങളില് ഒക്കെ ചെറിയ ചെറിയ സ്റ്റിച്ചിങ് നടത്താനുള്ള കാര്യങ്ങള് ചെയ്യുന്നത്